ഇത് ഡോക്ടർ അല്ലേ ആ ഡോക്ടറെ എൻ്റെ മോന് ഇന്ന് ജസ്റ്റ് ഒന്ന് വീണിരുന്നു അപ്പോൾ പെട്ടെന്ന് കൈയ്യ് കുത്തിയാണ് വീണതെന്ന് അവൻ പറയുന്നുണ്ട് പക്ഷേ കൈയ്ക്ക് പെട്ടെന്ന് നീരും കാര്യങ്ങളൊക്കെയാ ഇത് ഇപ്പോൾ എക്സ്റേ എടുക്കേണ്ടി വരോ അതോ ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് വരണോ

ആ ആ ആ

പറ്റുള്ളൂ അല്ലേ ആ അല്ല ഇതിപ്പോൾ അവന് ആകെ ഒരു വയസ്സ് ആവുന്നേ ഉള്ളൂ ആ കട്ടിലീന്ന് താഴേക്ക് പോവാ ചെയ്തേ അപ്പോൾ ആ ആ ഓക്കെ അപ്പോൾ എവിടെ ചെന്നാലാ ഇത് ഇപ്പോൾ കൊച്ച് ആയതുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ എന്തേലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവോ ചെയ്യുന്നത് ആയിരിക്കും അല്ലേ ബെറ്ററ്

ഓക്കെ

ആ ആ ആയിക്കോട്ടെ അപ്പോൾ ഡോക്ടർ ഇപ്പോൾ അവിടെ ഉണ്ടാവില്ലേ ഞങ്ങളിപ്പത്തന്നെ എന്നാൽ ഇറങ്ങുക ആ ആ തിരക്ക് അങ്ങനെ എന്തേലും ഉണ്ടോ ആ ഓക്കെ ആയിക്കോട്ടെ ഡോക്ടർ എന്നാൽ ഞാൻ പെട്ടെന്നെന്നെ ഇറങ്ങാം ഓക്കെ ഡോക്ടർ